കേരളത്തിലെ ഒരു ഭക്ഷ്യ ഒരു വ്യാപാരികൾ ഏറ്റവും കൂടുതൽ മുൻ മുൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നത് വ്യാപാരത്തിന് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവയുടെ വസ്തുക്കൾ അഥവാ മാലിന്യങ്ങൾ ഉത്പന്നപ്പെടുന്ന മാലിന്യങ്ങൾ കളയാനൊരു വ്യത്യസ്ത ഐ മീൻ ഒരു വ്യക്തമായ ഒരു മാലിന്യ നിർമ്മാ നിർമ്മാചരണ പദ്ധതിയില്ല എന്നുള്ളതായിരിക്കും കാരണം ഇത്തരത്തിൽ വലിയ ഒരു ആൾക്കൂട്ടത്തെ മുന്നിൽ കണ്ട് കൊണ്ടാണ് ഇവർ വ്യാപാരങ്ങൾ ചെയ്യുന്നത് അങ്ങനെ മുൻ കണ്ട് കൊണ്ട് വ്യാപാരങ്ങൾ ചെയ്യുമ്പോൾ അത്രയധികം സംഭവങ്ങൾ അവരുണ്ടാക്കുന്നു അത്രയധികം മാലിന്യങ്ങളവർ സൃഷ്ടിക്കുന്നുമുണ്ട് എന്നാലീ ഒരു മാലിന്യത്തിനൊരു മര്യാദക്കുള്ള നിർജരണ പദ്ധതി ഇല്ലാത്തതു കൊണ്ടു തന്നെ അവർ ഇത് വെള്ളമാക്കി അല്ലെങ്കിൽ അതിനെ അരച്ച് വെള്ളമാക്കി വെള്ളത്തരത്തിലുള്ള അതായത് പാടങ്ങളിൽ പുഴകളിലൊക്കെ ഒഴുക്കി വിടുന്ന ഓരോ രീതിയാണ് കണ്ടു വരുന്നത് ഇത് കാരണം നമ്മളുടെ ഭംഗിയുള്ള പുഴകളെല്ലാം നശിച്ച് നശിച്ച് വരികയാണ് ഒന്നാമത് നമുക്കൊരുപാട് തരത്തിലുള്ള